പല മനുഷ്യരും നമ്മുടെ കേരളത്തിലോട്ട് കയറി പല കടലും കരയുമെല്ലാം താണ്ടി നമ്മുടെ കേരളത്തിലോട്ടെത്തുന്നത് അത് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക സാംസ്കാരികതയെ സ്നേഹിക്കുന്നതും അതു മാത്രമല്ല അവരെല്ലാവരും നമ്മുടെ കേരളത്തെ അവരുടെ നെഞ്ചോടു ചേർത്ത് വെച്ചതു കൊണ്ടാണ് നമ്മുടെ കേരളത്തെ സന്ദർശിക്കുമ്പോൾ ഒരുപാട് വിധ വിനോദസഞ്ചാരികൾ അവർ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പല വിനോദരൂപങ്ങൾ ഉണ്ട് അതിനുദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പല തെരുവു പ്രകടനങ്ങൾ ഇവിടെ കാഴ്ചവെയ്ക്കാവുന്നതാണ് ഇപ്പോൾ പാട്ടു പരിപാടികൾ അല്ലെങ്കിൽ വഴിയരികിൽ നിന്നു നൃത്തം ചെയ്യാം അവർക്ക് അങ്ങനെയുള്ള പല പരിപാടികളും നമ്മുടെ തെരുവിൽ നടത്താവുന്നതാണ് പല വാദ്യോപരണങ്ങൾ വെച്ചിട്ട് അവർക്ക് പല പരിപാടികൾ നടത്താം അതുപോലെ തന്നെ പല പ്രാദേശിക ഉത്സവൽ ഉത്സവങ്ങൾ അവർക്ക് കണ്ടുപഠിച്ചും കേട്ടു പഠിച്ചും അവർക്കറിവുണ്ടെങ്കിൽ അവർക്ക് അതും നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കാനുള്ള എല്ലാ അവകാശവും നമ്മുടെ നാട് അവർക്കു വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട് പരമ്പരാഗത കളി കലകൾ ഇപ്പം ഉദാഹരണത്തിന് കഥകളി അവർക്കെല്ലാ അവസരങ്ങളും നമ്മുടെ കേരളം എന്ന നാട് അവർക്കു വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട് അവർക്കീ ഏതു മേഘലകളിലും അവർക്ക് എപ്പം വേണമെന്നുണ്ടെങ്കിലും അവരുടെ വിനോദത്തിന് അവർക്ക് ഏതൊരു മേഘലകയിലു മേഘലയിലും അവരുടെ കഴിവുകൾ കാഴ്ചവെയ്ക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ പ്രാദേശിക ഉത്സവൽ ഉത്സവങ്ങളാകട്ടെ പരമ്പരാഗത കലകളാകട്ടെ ഇതിനെല്ലാം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കഥകളി വിഷു തെരുവുപ്രകടനങ്ങൾ ഇങ്ങനൊരുപാട് കാര്യങ്ങൾ അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ കേരളം അവർക്ക് അവസരം കൊടുക്കുന്നു അതുകൊണ്ടു തന്നെ അവർക്ക് ഇതെല്ലാം എപ്പം വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ നാട്ടിൽ അവതരിപ്പിക്കാനും അതു മറ്റ് ആൾക്കാരിലെത്തിക്കാനും അവരെ അംഗീകരിക്കാനും എല്ലാറ്റിനുമുള്ള അവസരങ്ങൾ നമ്മുടെ നാടായ കേരളം അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്